ഹലോ ഹലോ ഫെബിൻ ചേട്ടനല്ലേ ഏ എൻ്റെ പേര് നീനേന്നാണെ ഞാൻ ആ ഞാൻ വിളിച്ചത് ഒരോട്ടം പോവാൻ വേണ്ടീട്ടായിരുന്നു ചേട്ടനിപ്പം ഫ്രീയാണോ അയ്യോ അങ്ങനെ പറയാൻ പറ്റില്ല ഇല്ല ചേട്ടാ എനിക്ക് ചേട്ടനേ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളു അപ്പം ചേട്ടൻ വന്നേ പറ്റു കുറച്ച് വേയ്റ്റ് ചെയ്യാം ഒരു അര മണിക്കൂറ് അപ്പം അത് കഴിഞ്ഞിട്ട് വരാവോ എനിക്ക് മായം വരെ ഒന്ന് പോണമായിരുന്നു ആ ആ ഇല്ല ഇല്ല ഇപ്പം ഇവിടെന്ന് ഇപ്പം എൻ്റെ വീടിപ്പം അമ്പൂരിയാണ് അമ്പൂരീന്ന് കയറാൻ വേണ്ടീട്ട് ഞാൻ മാത്രമേ ഉള്ളു കുറച്ച് കഴിയുമ്പോൾ ഒരാളും കൂടി കയറും ഇല്ലില്ല വേയ്റ്റേ ചെയ്ത് നിൽക്കണം കുറച്ച് സമയം തിരിച്ചിങ്ങോട്ട് വരണമല്ലോ അവിടെ ഒര് അര മുക്കാൽ മണിക്കൂറ് നിൽക്ക് വേയ്റ്റേ ചെയ്യേണ്ടി വരും ആ കുഴപ്പമില്ലല്ലേ ആ എത്ര രൂപയെ ഓട്ടോ ചാർജ്ജ്

ആ മായത്ത് മായത്ത് മുന്നൂറ് രൂപയോ ഓക്കെ ആ ഈ പൈസ തന്നെയാണോ വാങ്ങിക്കുന്നത് കുറച്ച് കൂടിയൊന്ന് കുറയ്ക്കാൻ പറ്റത്തില്ലേ

ആ ആ ചേട്ടാ ആ കേൾക്കുന്നുണ്ട് ഇല്ല ചേട്ടന് കുറച്ച് പൈസ കുറച്ച് വാങ്ങിക്കത്തൊള്ളൂന്നാണ് ഞാൻ കേട്ടത് അപ്പം ഞാൻ എനിക്ക് വിശ്വാസമുള്ളോണ്ടാണ് വിളിച്ചത് കുറച്ചൊന്ന് പൈസ കുറക്കാൻ പാറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ആ ഓക്കെ ചേട്ടാ താങ്ക് യൂ ഇല്ല ആ ഓക്കെ ഓക്കെ വേയ്റ്റെ ചെയ്യാം ഞാൻ ചേട്ടനെ വിളിക്കാം അപ്പോഴ്ത്തേക്കും ഇപ്പം ഇപ്പം ചേട്ടന് കറക്റ്റെവിടെയാണ് നിൽക്കുന്നത്

നാൽപ്പത് മിനിറ്റ് ആ അതിൽ കൂടത്തില്ലല്ലോ അല്ലേ മാക്സിമമൊന്ന് കുറച്ച് നേരത്തേ ഇറങ്ങാനായിട്ടൊന്ന് നോക്ക്യേക്കെ ആ ആ ഓക്കെ ഓക്കെ ചേട്ടാ താങ്ക് യൂ ആ എനിയ്ക്കാ